ഇന്നത്തെ വിദ്യാഭ്യാസ രീതിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ശരിക്കും എല്ലാവരും ആഗ്രഹിക്കുന്നത് വലിയ ഏതെങ്കിലുമൊരു സ്ഥാപനത്തിൽ ചേര്ന്ന് പഠിക്കാനാണ് പക്ഷേ അങ്ങനെയൊരു സ്ഥാപനത്തില് നമുക്ക് ചേര്ന്ന് പഠിക്കണമെങ്കിൽ വലിയ വളരെ വലിയൊരു മത്സര പരീക്ഷ തന്നെ നമ്മൾ നേരിടേണ്ടതുണ്ട് പക്ഷേ എല്ലാവര്ക്കും ഇത് താങ്ങാന് പറ്റില്ല എ എന്നു വെച്ചാൽ എല്ലാവര്ക്കു ഇത് നേരിട്ട് ഒരു ആ ഒരു പരീക്ഷ മത്സര പരീക്ഷയ്ക്ക് അത്രയും റാങ്കിനുള്ളില് കടന്നുകൂടി അവിടെ അഡ്മിഷൻ പ്രവേശനം ലഭിക്കണമെന്നില്ല ചിലര്ക്ക് കുറച്ച് ഫീസൊക്കെ കൊടുത്തൊക്കെ വേണ്ടി വരും അത് ചെയ്യാന് പക്ഷേ അത് സാധാരണക്കാര്ക്ക് നല്ല ബുദ്ധിമുട്ടുള്ളൊരു കാര്യം തന്നെയാണ് പിന്നെ ഈ മത്സര പരീക്ഷയെ കുറിച്ച് പറയുമ്പം കുട്ടികള് എത്രയൊക്കെ നന്നായിട്ട് പഠിച്ച ഒരു കുട്ടിയാണെങ്കിലും നല്ല സമ്മര്ദ്ധത്തോടെ മാത്രമാണ് നമുക്കി പരീക്ഷയെ സമീപിക്കാന് കഴിയൂ കാരണം ഒരു ആ മത്സര പരീക്ഷയില് എന്ത് ചോദ്യം ചോദിക്കുന്നു ആകെ ഒരു എത്ര എത്ര എത്ര കൊസ്റ്റിന്സ് ഉണ്ട് ആ ഒരു എക്സാം ആ ഒരു പരീക്ഷ എഴുതുന്ന ആ ഒരു സമയത്ത് മാത്രമാണ് ശരിക്കും നമ്മുടെ ഭാവി നിശ്ചയിക്കുന്നത് ആ പരീക്ഷയ്ക്ക് എന്തൊക്കെ ചോദിക്കുന്നു അതിന് നമ്മൾ കൊടുക്കുന്ന ഉത്തരങ്ങൾ പോലെയിരിക്കും നമ്മൾ ഇത്ര നാൾ പഠിച്ചതിന്റെ റിസല്ട്ട്